ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ടൈപ്പിലുള്ള ഡിവൈസിനെ പറ്റിയാണ്

പിന്നെ അതിൻ്റെ ലൈഫിലെ വാരണ്ടിയൊക്കെ ഇച്ചിരിയും കൂടെ നല്ലത് ബിപിഎല്ല് തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ താൽപര്യത്തിൽ എനിക്ക് ബിപിഎല്ലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സോണിയെക്കാളും